ഞാനാണ് എൻ്റെ പേരേല് പാചകം ചെയ്യല് ഞാൻ ഉണ്ടാക്കണ ഭക്ഷണമെന്നു പറഞ്ഞാൽ ഇല അട ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും പാലപ്പം ഉണ്ടാക്കും കടലക്കറി ഉണ്ടാക്കും പുട്ട് ഉണ്ടാക്കും റവ ഇഡ്ഡലി ഉണ്ടാക്കും തക്കാളി ചട്ടിണി ഉണ്ടാക്കും പിന്നെ പോള ബിരിയാണി ഉണ്ടാക്കും ചോറ് ഉണ്ടാക്കും സാമ്പാർ ഉണ്ടാക്കും മീൻ പിന്നെ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കണേല് റവാ ഇഡലി തക്കാളി ചട്ടിണി ആദ്യം റവ

കേരറ്റ് അരിയണം പിന്നെ അത് വെളിച്ചെണ്ണയിലിട്ട് കടുക് വറുത്ത് അതിലിട്ട് വഴറ്റിയെടുക്കണം എന്നിട്ട് റവായ്ക്കിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം പിന്നെ തൈര് കട്ട ഉടച്ച് ഉപ്പിട്ട് ഇളക്കിയിട്ട് ഈ റവേക്ക് ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം ഇളക്കിയിട്ട് മാവാക്കി ഇടിക്കണം പിന്നെ രാവിലെ അത് എടുത്തു കൊണ്ട് ചുട്ടെടുക്കണം പിന്നെ തക്കാളി വാട്ടി അത് അരച്ച് മുളകും ഉപ്പും കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ കൂട്ടി നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ച് വെളിച്ചെണ്ണയിൽ ച കടുകിട്ട് അതിലിട്ടങ്ങാണ്ട് വേവിച്ചെടുക്കണം കരിവേപ്പിൻ്റെ ഇലയും ഇടണം അപ്പം തക്കാളി ചട്ടിണിയും റവാ ഇഡലിയും റെഡി